ഹലോ നമസ്കാരം ഞാനേ ഒരു മൊബൈൽ ഏടുക്കാൻ പറഞ്ഞിട്ട് വന്നതാണേ

ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ് വേണ്ടത് ഇപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ വേണം ആ ഏതൊക്കെ ഫോൺ ഉള്ളത് ചേട്ടാ ആ ഐഫോണും ഉണ്ടോ മറ്റേ നമുക്ക് ആൻഡ്രോയിഡില് തന്നെ നോക്കാം ആ അതിൻ്റെ ക്യാമറയൊക്കെ എങ്ങനെയാണ് വരുന്നത്

അതേ അല്ലേ അതിനിപ്പം എത്ര രൂപയാണ് വരുന്നത് ഓക്കെ നമുക്ക് എത്ര അപ്പം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് കിട്ടും

ആ അപ്പം നമുക്കീ എം ഐ എത്ര മറ്റേ പൈസ വരിക മാസം അതെ അല്ലെ അപ്പോൾ നമുക്കൊരു രണ്ട് കൊല്ലത്തിനുള്ളിൽ തീരാവുന്ന രീതിയില് ഉള്ളത് നോക്കാം പിന്നതിന് മറ്റേ ലാ ഈ നമ്മുടെ ഓഫറ് പോലത്തെ അതായത് ഹെഡ്സെറ്റോ അങ്ങനെന്തേലും ഫ്രീ ആയിട്ട് കിട്ടുവോ

അ വേറെ ഏതാ ഉള്ളത് ചേട്ടാ ഒരു എഴുപത്തഞ്ചൊക്കെ കുറച്ചും കൂടി താന്ന രീതിയിൽ വേറെ നല്ല ഫോൺ ഏതെങ്കിലും ഉണ്ടോ

ഇപ്പോൾ അതിന് ഇതേപോലെ നമുക്ക് ഓഫറും മറ്റേ ഇതൊക്കെ കിട്ടുവോ ഇ എം ഐ ഓപ്ഷനൊക്കെ കിട്ടുവോ

ഈ മറ്റേ ബജാജ് ഫിൻസെർവോ അല്ലെങ്കിൽ എസ് ബി ഐ ബാങ്കോ ഏതൊണ്ട് കുറച്ചും കൂടി നല്ലത് മറ്റേ ഇ എം ഐ എടുക്കാൻ അതെ അല്ലെ അപ്പോൾ ഏതാ പലിശ കുറവുള്ളതുണ്ടാവുക

നോ കോസ്റ്റ് ഇ എം ഐ ഒന്നും കിട്ടില്ല അതെ അല്ലെ ആ അത് കുഴപ്പമില്ല നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ കിട്ടുവാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നല്ലത് ആ എന്നാലും ഇപ്പോൾ എമൗണ്ട് ആയിരം നമുക്ക് ഫോൺൻ്റെ ആടവല്ലേ വരുവൊള്ളു മറ്റേത് വീണ്ടും പലിശ ആയിരിക്കും ആ അപ്പം നമുക്കത് നോക്കാം എന്തായാലും ചേട്ടൻ മറ്റേ ഓപ്പോൻ്റെ ഫോണുതന്നെ എടുത്തോളു ഓക്കെ ഏട്ടാ അവിടെ ബില്ലിങ്ങ് അവിടെ അവിടെയാണോ നമ്മുക്കവിടെ പോയിട്ട് അതിൻ്റെയീ ഇ എം ഐൻ്റെ കാര്യങ്ങളൊക്കെ ആ ഓക്കെ ഇവിടുന്നു തന്നെ ചെയ്യാം എല്ലാം അല്ലെ ആ ഓക്കെ താങ്ക്യൂ